ഹലോ ആ ഇത് മന്നാ റെസ്റ്റോറൻ്റല്ലെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടീട്ട് ആയിരുന്നു ആ അതെ അതെ അതെ എനിക്കൊരു അതായത് ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പോൾ അതിന് കുറച്ച് കൂടുതലായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യണം അതിന് വേണ്ടീട്ട് ആയിരുന്നു ആ അതെ അതെ ഒരു നമ്മൾ ഏകദേശം ഒരു നൂറ് പേരുടെ അടുത്ത് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പൊറോട്ട വെച്ചിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് പൊറോട്ടേൻ്റടുത്ത് നമ്മൾക്ക് വേണ്ടി വരും ആ അതെ അതെ ആ അപ്പോൾ അതിനനുസരിച്ചുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ മറ്റന്നാളത്തേക്കാണ് വേണ്ടത് ആ അതെ അതെ അതെ മറ്റന്നാൾ അപ്പോൾ വീട്ടിലേക്ക് നിങ്ങൾ എത്തി ചേരൂല്ലേ അതോ ഞങ്ങൾ അവിടെ വന്നിട്ട് എടുക്കണോ ആ കൊണ്ട് തരും ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും കിഴിവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കൂപ്പണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ നമ്മൾ ഇത്രയും ബൾക്കായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതല്ലെ നമ്മൾക്കെന്തെങ്കിലും പൈസ കുറച്ചൊക്കെ തരുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു കാരണം നമ്മൾ ഇത്രയും സാധനം ഓർഡർ ചെയ്യുന്നതല്ലെ ഓക്കെ ഓക്കെ ആ ഒന്ന് മറ്റന്നാളത്തേക്ക് എത്തിക്കൂ കേട്ടോ ഓക്കെ എന്നാൽ